കർഷകോല്പന്നങ്ങൾ കടത്താൻ ല് ലോറി കാർ ട്രക്ക് ജീപ്പ് ടിപ്പർ പിന്നെ പിക്കപ്പ് അങ്ങനെ പല പല വാഹനങ്ങളുണ്ട് പക്ഷേ ഇന്നിതൊന്നും കാർഷി ഉൽപ്പന്നം വ്യാപാരമാണ് എന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കൃഷിക്കാരന് ഒന്നും കിട്ടുന്നില്ല കൃഷിക്കാരന് അവൻ ഉല്പാദിപ്പിക്കുന്നതിൻ്റെ പത്തിലൊന്ന് പോലും കൃഷിക്കാരന് കിട്ടില്ല അതെല്ലാം എല്ലാം ഇടത്തട്ടുകാരനാണ് എല്ലാം കിട്ടുന്നത് വിൽക്കുന്ന വ്യാപാരിക്കും അവന് വ്യാപാരിയുടെ പത്ത് കൈ മറിഞ്ഞിട്ടായിരിക്കും ഒരു കച്ചവടക്കാരൻറെ അടുത്ത് ഒരു ചെറുകിട കച്ചവടക്കാരൻറെ അടുത്ത് വരുന്നത് അപ്പം അപ്പോഴത്തേക്കും വാങ്ങുന്നവന് അന്യായ വിലയും വിൽക്കുന്നവന് വില ഇല്ലാതെയും ആണ് ഇന്ന് കാർഷിക ഉല്പന്നങ്ങൾ പോകുന്നത് ഇന്ന് കാർഷിക ഉല്പന്നങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ള ഇതിൻ്റെ അതാണ് കാർഷിക ഉല്പന്നങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ള അല്ലാതെ സീസ് ഓരോ ഓരോ സാധനങ്ങളും സമയാസമയങ്ങളിൽ ശേഖരിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വല്യ കർഷകൻറെ ഏറ്റവും വലിയ ഇത് ഈ ഇപ്പം ചക്ക തന്നെ ആണെങ്കിൽ ഒരു സീസണിലുള്ള സാധനമാണ് പക്ഷേ അത് അത് കഴിയുമ്പോഴത്തേക്കും അത് പഴുത്തടിച്ച് അതെല്ലാം പോവും പിന്നെ അത് ശേഖരിച്ച് വയ്ക്കുന്നില്ല അത് ഇടയ്ക്കുനിന്ന് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇത് വാങ്ങി അവർ കൊണ്ടുപോവും പിന്നെ ചക്ക ഉൽപാദനം ഉൽപ് ഇത് ഉല്പന്നങ്ങൾ കേടായി അത് പോകാതെ സൂക്ഷിക്കാൻ വലിയ ജാടുകളും അതുപോലെ തന്നെ ഇതില്ലാത്തതാണ് കർഷകന് ഏറ്റവും വലിയ പ്രശ്നം വലിയ ഗാർഡ് ഉണ്ടാക്കുകയും അതിനകത്ത് ഈ ഓരോ സീസണിലെ സാധനങ്ങൾ അതിനെ വിവിധ പ്രോസസ്സ് ചെയ്ത് വിവിധ ഉല്പന്നങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ കർഷകനും അതുപോലെ തന്നെ നല്ല വില കിട്ടും വാങ്ങുന്നവന് ആവശ്യക്കാരനും നല്ല വില കിട്ടുകയും നല്ല രീതിയിൽ വിൽക്കുവാനും താല്പര്യമുണ്ടാകും നല്ല ഗതാഗത സംവിധാനം വേണം പലയിടത്തും ഗതാഗത സംവിധാനം വളരെ മോശമാണ് സ്വന്തമായി നമു വാഹനമില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഇതാണ് ട്രെയിൻ മാറ്റ് ട്രെയിൻ മാർഗം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഈ സാധനങ്ങൾ പോവാൻ കേരളത്തിൽ നിന്ന് പോകുന്നതിനു വേണ്ടി ഗതാ ട്രെയിൻ സംവിധാനം വേണം പിന്നെ അതിൽ നിന്ന് ഗവൺമെൻറിന് കെ റെയിലും അതുപോലെ പറയുന്ന ജനങ്ങളെ ഉള്ള സ്ഥലത്തുകൂടെ ഒന്നും ഉണ്ടാക്കാൻ പോലും പറ്റാതെ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പോകത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് ഈ കെ റെയിൽ എന്നൊക്കെ പറയുന്നത് ജനത്തിൻ്റെ നല്ല കാർഷികവും ഗവണ്മെൻറ് തന്നെ കാർഷിക ഉല്പന്നങ്ങൾ ശേഖരിച്ച് കർഷകന് ന്യായവില കൊടുത്ത് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കർഷകന് കുറച്ചുകൂടി ഇരുവരും നിർമിച്ചപ്പം മെച്ചമുണ്ടാവും അവൻ്റെ സബ്സിഡികൾ കൊടുക്കുക അവന് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക പുതിയ നൂതന കൃഷിയിലേക്ക് കർഷകനെ എത്തിക്കുക